വളരെ മനോഹരമായിട്ടൊരു റോക്ക് ക്ലൈമ്പിങ്ങ് എക്സ്പീരിയെൻസെൻസെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ ഒരു പഠനസം പഠനത്തെ സംബന്ധിച്ചിട്ട് ഒരു യാത്ര പോകേണ്ടി വന്നു അപ്പോൾ അതിന് തന്നെ കുറച്ച് ഉൾപ്രദേശം ഉണ്ടായിരുന്നു അങ്ങനെ നടന്നു എന്നിട്ടൊരു റോക്ക് ഉണ്ടായിരുന്നു കുത്തനെ അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം അങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് യൂസെയ്യണ്ട ആവശ്യം ഇല്ലായിരുന്നു സ്ലോപ്പ് കുത്തനെ അല്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്നാലും പതിവില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളത് കൊണ്ട് പരസ്പരം എന്താ പറയുക എൻകറേജൊക്കെ ചെയ്ത് ഞങ്ങൾ ആ ഒരു ഒരു ആ ഒരു റോക്ക് ക്ലൈമ്പിങ്ങ് നടത്തി ആദ്യം മുകളിൽ എത്തിയിട്ട് ഒരു വ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ താഴെ ഒക്കെ ഒരു സിറ്റി ഒക്കെ നമുക്ക് മുകളിൽ ഇരുന്ന് കാണായിരുന്നു അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കേറിയെങ്കിലും നല്ലൊരു വ്യൂ തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത് കിട്ടിയത് അവസാനം അവിടെ എത്തിയപ്പൊഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്